ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഈ തയ്യലൊക്കെ ആരംഭിച്ചത് അപ്പം തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയാനായിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതെന്ന് വച്ചാൽ എൻ്റെ അച്ചാച്ചൻ പണ്ട്ത യ്ക്കുമായിരുന്നു തയ്യൽ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികവായിട്ട് എനിക്ക് എന്തൊരു തയ്യലിനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയതാണ് ഇപ്പം ഓരോരുത്തർ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊണ്ട് വരുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു അതുപോലെ വേണം എന്നൊക്കെ ഒരു ഇത് കാണുമല്ലോ അപ്പം ഇങ്ങനെ ഒരു കഴിവ് ദൈവം തന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു താൽപ്പര്യം തോന്നി അപ്പം വീട്ടിൽ ഒരു പഴയ മെഷീൻ വാങ്ങിച്ചിരുന്നു വീട്ടിലെ ആവിശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോഴൊന്നും എനിക്ക് ഈ തയ്യൽ അറിയത്തില്ല അപ്പം ജസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഒന്നു എന്താണ് പറയുക ആ മെഷീൻ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പഠിച്ചു പിന്നീട് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ തന്നെ പഠിക്കുകയാണ് ചെയ്തത് അപ്പം പുറത്ത് പോയി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പം ആദ്യമായിട്ട് ഡെസ്റ്ററ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഞാൻ തയ്ച്ച് തുടങ്ങിയത് നല്ല പെർഫെക്റ്റാ യിട്ട് വന്നപ്പം പിന്നീട് അത് എനിക്ക് തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് ഞാൻ ചെറിയ ടോപ്പ് ഫ്രോക്ക് അങ്ങനെയൊക്കെ തയ്ക്കാൻ തുടങ്ങി ആദ്യം വലിയ പെർഫെക്റ്റ് അല്ലെങ്കിലും പിന്നെ തയ്ച്ചു തയ്ച്ചു അത് പെർഫെക്റ്റ് ആയി പിന്നെ ഞാൻ അത് ഇട്ട് കഴിയുമ്പം മറ്റുള്ളവർ ഒരു നല്ല ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സന്തോഷം ആണ് നമ്മൾ സ്വന്തവായിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ച് ഇട്ടിട്ട് മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം അല്ലെ അപ്പോൾ അതായിരുന്നു എനിക്ക് ഇ കൂടുതൽ കൂടുതൽ പിന്നീടും ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ഇത് തോന്നിയത് അപ്പം ആദ്യം വീട്ടിലുള്ള സംഭവങ്ങളും അല്ലേൽ പഴയ തുണിയൊക്കെ വച്ചിട്ടായിരുന്നു ചെയ്തത് പിന്നെ ഓരോരുത്തർ അഭിപ്രായം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഞാൻ എന്താണ് പറയുക എനിക്ക് വേണ്ടിയിട്ടും അല്ലേൽ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള പിന്നെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അവരൊക്കെ ഇടുന്ന കണ്ടിട്ടും അല്ലേൽ ഞാൻ ഇടുന്ന കണ്ടിട്ടും മറ്റുള്ളവർ ചോദിക്കാറുണ്ട് അങ്ങനെ വീടിന് അടുത്തുള്ളവർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പം പിന്നെ അത് ചെറിയ ഒരു വരുമാന രീതിയെന്ന് രീതിയിലും ഇത് നമുക്ക് ഉപകാരപ്പെടുത്താലോ അപ്പം എനിക്ക് അത് നല്ല രീതിയിൽ ഒന്ന് എന്നാൽ ഇതിനോട് ചെയ്യാനുള്ള ഒരു താൽപ്പര്യം പിന്നെ ഡ്രസ്സിനൊക്കെ ഇപ്പൊ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര റെയിറ്റ് ആണ് അപ്പം സ്വന്തമായിട്ട് ഒരു മെഷീനും അത് ചെയ്യാനുള്ള ഒരു താൽപ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാഷ് നമുക്ക് വേറെ വേറെ ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കേണ്ട ആവിശ്യം ഇല്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ മെയിനായിട്ട് മറ്റുള്ളവർ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സഹായകം ആണ് പിന്നെ പുതിയ പുതിയ മോഡലുകളൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി തയ്ക്കാറൊക്കെ ഉണ്ട് അപ്പം ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ താൽപ്പര്യം